ഒന്ന് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഒന്ന് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്